ആ റോബ് അല്ലേ റോബേ അടുത്ത ആഴ്ചയിലൊരു ചെറിയ യാത്ര കുടുംബസമേതം സംഘടിപ്പിക്കുന്നുണ്ട് അതിന് അതിൻ്റെ യാത്ര സംബന്ധിച്ച ഒരു വാഹനം ബുക്ക് ചെയ്ത് പോകുന്നതിനാണ് അതിൻ്റെ ചാർജിനെ കുറിച്ച് അറിയുന്നതിനാൽ നാല് പേർക്കിരിക്കാവുന്ന ഒരു സഞ്ചരിക്കാവുന്ന ഒരു കാറിൻ്റെ റേറ്റ് എന്ത് വരും നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറിലേക്കാണ് അതിനുള്ള ചാർജ് എന്ത് വരും അത് പോലെ അല്ലെങ്കിൽ ഒരു ആറ് പേർ ചിലപ്പോൾ രണ്ട് പേരും കൂടെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോഴാണെങ്കിൽ ആറ് പേരായിരിക്കും അതിൻ്റെ ആ യാത്രയ്ക്ക് വരുന്ന അതിൻ്റെ റേറ്റിനെ സംബന്ധിച്ച് ഒന്ന് അറിയിക്കണം